വാർത്തകളെ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട് കാരിമ്പം ഇപ്പോൾ പൊതുവെ കഴിഞ്ഞെ കുറച്ച് നാളായിട്ട് നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷനായിരുന്നു അതേപ്പറ്റിയുള്ള വിവരങ്ങൾ അതിനകത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടേയും അവകാശവാദങ്ങൾ അവരുടെ ഭരണം അവർ ഭരണത്തിൽ കയറിയാൽ ഞങ്ങൾക്ക് വേണ്ടി എന്ത് നന്മയാണ് ചെയ്യുന്നത് എന്തെല്ലാമാണെന്ന് അത് നമുക്ക് ഓരോരുത്തരുടേയും ഈ വിഷയങ്ങൾ നമ്മൾ കേൾക്കുമ്പം തീർച്ചയായിട്ടും നമുക്ക് ഏത് രാഷ്ട്രീയമാ പാർട്ടിയാണ് നമുക്ക് കൂടുതൽ നമ്മൾക്ക് ജനസേവനം ചെയ്യുന്നത് എന്നും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആരാണ് സ്ഥാനാർത്ഥിയെപ്പറ്റിയുള്ള വിവരണങ്ങൾ കാണും അപ്പം അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ അതിന് അദ്ദേഹത്തിൻ്റെ ദോഷ അവ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ഇതൊക്കെ നമുക്ക് വാർത്തകളിൽ കൂടെയും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിഷയം സാമൂഹിക വിഷയങ്ങളൊക്കെ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതനുസരിച്ച് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ചിന്തിക്കാനും നമുക്കിഷ്ടപ്പെട്ട ആളുകൾ പൊതുവെ രാഷ്ട്രീയ രാഷ്ട്രീയം പ്രത്യേക രാഷ്ട്രീയമൊന്നും പാർട്ടിയിലോ ഒന്നും ഉൾപ്പെടാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ഈ വിഷയങ്ങളിൽ കൂടെ നമുക്ക് ആരെ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം ആരെ ജയിപ്പിച്ചിട്ടാണ് നാടിനും നാട്ടുകാർക്കും ഗുണം ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഈ ചർച്ചയിൽ കൂടി നമ്മൾക്ക് ലഭിക്കുന്ന കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ കല കായിക മത്സരങ്ങൾ കലാപരമായിട്ടുള്ള പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുന്നത് അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കൊലപാതകവും മധ്യ മയക്ക് മരുന്ന് വേട്ടയും ഒക്കെയാണ് മറ്റു നന്മയില്ലെന്നല്ല പറയുന്നത് തീർച്ചയായിട്ടും ഈയൊരു കാര്യത്തിൽ പലപ്പോഴും ഇത് കാണുന്ന ഒരു വ്യക്തിയെ ഒരു മീഡിയയിൽ കൂടെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ മാധ്യമത്തിൽക്കൂടെ നമ്മൾ ഇത് വായിക്കുകയും അല്ലേൽ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നേരിൻ്റെ വഴിയേ ചലിക്കുവാൻ നമുക്ക് ഒത്തിരി മാർഗ്ഗങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട് അപ്പം മയക്ക് മരുന്നിൻ്റെ ആ അതിൻ്റെ ദൂഷ്യത്തെപ്പറ്റി കുട്ടികളേയും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളേയും എല്ലാവരേം അവരുംകൂടെ കേട്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ആ മാധ്യമങ്ങളിൽനിന്ന് കിട്ടിയ അറിവുകൾ അവർക്ക് പകർന്നുകൊടുക്കാൻ സാധിക്കും അപ്പം അതനുസരിച്ച് ഒരു നല്ല ചിന്തയോടുള്ള നമ്മുടെ യുവാക്കളെ മുന്നോട്ട് കൊണ്ടു വരാൻ പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലെങ്കിലും നമ്മൾക്ക് സാധിക്കും അപ്പം ഇന്ന് കേരളത്തിൽ കൊലപാതകങ്ങൾ ഒരു കാര്യവുമില്ലാതെ നിസ്സാരകാര്യത്തിന് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മതവൈരാഗ്യത്തിൻ്റെ പേരിൽ ഒക്കെ ധാരാളം കൊലകളും ഈശ്വരാനുഗ്രഹത്താൽ മത മതത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ വളരെ കുറവാണ് കാര്യമുണ്ട് ഇവിടുത്തെ ഓരോ മതത്തിൻ്റെ അധ്യക്ഷന്മാരും അല്ലെങ്കിൽ അവിടെ അതിൻ്റെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന ആൾക്കാർ പലതും അവരുടെ പ്രസംഗങ്ങൾ അവരുടെ അവർ എന്താണ് നമ്മളോട് പറയുന്നത് ഇതൊക്കെ നമുക്ക് കേട്ടിരിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്കും എല്ലാ മതങ്ങളും നമ്മളെ ഈശ്വരനിലേക്ക് നയിക്കുന്നെന്നും എല്ലാ മതങ്ങൾക്കും നന്മയും ഉണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ ഈ മാധ്യമം തീർച്ചയായിട്ടും മാധ്യമങ്ങളിൽ നിന്ന് നമ്മളത് വായിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ പല മാധ്യമങ്ങളിൽ വാർത്ത കേട്ട് കഴിഞ്ഞാൽ ആരാണ് കള്ളം പറയുന്നത് ആരാണ് സത്യം പറയുന്നത് എന്നൊക്കെ നമുക്ക് വിവേകിച്ച് അറിയാനും സാധിക്കും കരണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഓരോന്നും നടക്കുന്നത് അപ്പം തെറ്റ് ചെയ്യുന്നത് ആരാണ് എന്നൊക്കെ സഹായിക്കും പിന്നെ നാട്ടിലെ ക്രമസമാധാനം അതിൽ നമ്മളുടെ പങ്കെന്താണ് നമ്മളെന്തായിരിക്കണം എങ്ങനെയായിരിക്കണം നമ്മളൊരു മദ്യപാനിയായിരിക്കണമോ അല്ലെങ്കിലൊരു ലഹരി ഉപയോഗിക്കാൻ കെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ദൂഷ്യഫലങ്ങളാലുണ്ടാവുന്ന രോഗങ്ങൾക്ക് അടിമയാകണോ അങ്ങനെ അത് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത നശിപ്പിക്കണോ ഇതൊക്കെ നമുക്ക് ഈ വാർത്തകളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ നമ്മൾ അതേപ്പറ്റി ഈ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെപ്പറ്റി നമ്മൾ ഗൗരവമായി അറിഞ്ഞിരിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരനും ആവശ്യമായ കാര്യമാണ് പ്രത്യേകിച്ച് എന്നെ പോലൊരു വിമുക്ത ഭടനെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ഈ നാട്ടിലെ ഓരോ പ്രശ്നങ്ങളും അറിഞ്ഞിരിക്കുകയും നമ്മളാൽ കഴിയുന്ന നന്മകളും നാടിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ചെയ്ത് കൊടുക്കാനുമൊക്കെ സഹായിക്കും